ഹലോ ഇത് ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയല്ലേ എൻ്റെ പേര് ഡിയാൻഡ്ര ഞാനാണെങ്കിൽ ചങ്ങനാശ്ശേരിയിൽനിന്ന് വിളിക്കുകയായിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ ഞാനിന്ന് ഞങ്ങൾ സ്ഥലം മാറിയായിരുന്നു അപ്പോൾ ഈ ഇപ്പോൾ ബുക്ക് ചെയ്യുന്ന നമ്മൾ നേരത്തെ ഡെലിവറി ചെയ്തുകൊണ്ടിരുന്ന വിലാസത്തിലേക്ക് അല്ല ഇനിയും ഡെലിവറി വേണ്ടത് സോ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വിളിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ചങ്ങനാശ്ശേരി പനച്ചിക്കാവ് വെസ്റ്റാണ് അപ്പോൾ ഇന്ത്യൻ ഗ്യാസ് ഇനി അവിടോട്ട് കൊണ്ടുവന്നാൽ മതി ഞങ്ങളുടെ പിൻ കോഡ് അറുപത്തെട്ട് അറുപത്തൊന്ന് പൂജ്യം രണ്ട് പിന്നെ ഉപഭോക്ത ഐ ഡി അഞ്ച് ആറ് നാല് മൂന്ന് രണ്ട് രണ്ട് ഒന്ന് പൂജ്യം രണ്ട് എട്ട് ആണ് പിന്നെ പുതിയ വിലാസം പെരുന്ന വെസ്റ്റ് ചങ്ങനാശ്ശേരി പനച്ചിക്കാവ് പെരുന്ന വെസ്റ്റ് ചങ്ങനാശ്ശേരി അപ്പോൾ ഇനി തൊട്ട് ഞങ്ങൾക്ക് ഇന്ത്യൻ ഗ്യാസ് ഈയൊരു വിലാസത്തിലേക്കാണ് വരേണ്ടത് നേരത്തെ ഡെലിവറി ചെയ്തുകൊണ്ടിരുന്ന വിലാസം തെങ്ങണയാണ് ഇനി നമുക്ക് അവിടെയല്ല ഡെലിവറി വേണ്ടത് നമുക്ക് ഡെലിവറി വേണ്ടത് പനച്ചിക്കാവ് പി ഒ പെരുന്ന വെസ്റ്റ് ചങ്ങനാശ്ശേരി പിൻ കോഡ് അറുപത്തെട്ട് അറുപത്തൊന്ന് പൂജ്യം രണ്ടിലേക്കാണ് എൻ്റെ ഈ വിലാസങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി എന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ ഉടൻ പ്രോസസ് ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു പിന്നെ എൻ്റെ അപ്ഡേറ്റ് ചെയ്ത വിലാസം ഒന്നുംകൂടെ നിങ്ങൾ സ്ഥിതീകരിക്കുക ഇനി ഡെലിവറി വേണ്ടത് പനച്ചിക്കാവ് പെരുന്ന വെസ്റ്റ് ചങ്ങനാശ്ശേരി പിൻ കോഡ് അറുപത്തെട്ട് അറുപത്തൊന്ന് പൂജ്യം രണ്ട് എൻ്റെ പേര് ഡിയാൻഡ്ര ഡെൽജോ അപ്പോൾ ഇനി മുതൽ എനിക്ക് ഇവിടെ ഇന്ത്യൻ ഗ്യാസ് ഡെലിവറി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി